ചെറുപ്പം മുതലേ എനിക്ക് വണ്ടികളോട് ഭയങ്കര ക്രേസ് ആയിരുന്നു കുഞ്ഞിലേ അമ്മ പറയാറുണ്ട് ഏതെങ്കിലും വാഹനം പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് വാഹനമാണെന്ന് ഞാൻ പറയുമെന്ന് കുഞ്ഞിലേ മുതലേ അതെൻ്റെ ഉള്ളിലുണ്ട് കൊച്ചിലെ ആണെന്നുണ്ടെങ്കിൽ സൈക്കിൾ മേടിച്ചു അത് കഴിഞ്ഞ് ലേറ്റസ്റ്റ് സൈക്കിൾ ഇറങ്ങിയപ്പോൾ അത് മേടിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ പ വീട്ടിനടുത്തുള്ള പറമ്പിൽക്കൂടെ അല്ലെങ്കിൽ ഗ്രൌൻഡിൽ സൈക്ലിംഗ് അഭ്യാസം ഇതൊക്കെ ആയിരുന്നു എൻ്റെ കൊച്ചിലെ ക്രേസുകൾ അതിനുശേഷം വലുതായപ്പോൾ ലൈസൻസ് കിട്ടി കോളേജിൽ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ബൈക്ക് മേടിക്കുന്നത് കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ കാര്യങ്ങൾ എല്ലാം പോകുമായിരുന്നു അതിനുശേഷം ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞായറാഴ്ച ദിവസങ്ങളിലോ അവധി ദിവസങ്ങളിലോ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും അങ്ങോട്ട് ട്രിപ്പ് പോവുകയും കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ തന്നെ വണ്ടിക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ലോങ്ങ് പോവാനുള്ള ട്രിപ്പിന് വേണ്ട മോഡിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് ബൈക്ക് ഏത് വാഹനം പുതിയത് ഇറങ്ങുന്നുവെന്ന് കേട്ടാലും ഞാൻ അതിനെ പറ്റി ചെറിയൊരു സ്റ്റഡി ചെയ്യും എന്തൊക്കെയാണ് പ്രത്യേകതകൾ കാര്യങ്ങൾ വണ്ടി എന്ന് ബൈക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ക്രേസ് ആണെനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ എന്താണ് എല്ലാം നോക്കി വയ്ക്കും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഉള്ള വാഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങളാണ് അതുകൊണ്ടിപ്പം ട്രിപ്പ് കാര്യങ്ങൾ എല്ലാം പ്ലാൻ ചെയ്യുന്നത് അതുപോലെയാണ് പുതിയ പുതിയ റോഡ് റോഡില്ലാത്ത സ്ഥലങ്ങൾ ഓഫ് റോഡ് അടിക്കാൻ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ചെയ്യാറുള്ളത് കഴിവതും ഞായറാഴ്ചകൾ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ എല്ലാം ട്രിപ്പ് പോവാറുണ്ട് വൺ ഡേ ട്രിപ്പ് പോവാറുണ്ട് ലോങ്ങ് പോവാനായിട്ട് രണ്ടുമൂന്ന് ദിവസം അവധികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദൂരോട്ടുള്ള യാത്ര കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ആലോചിച്ചിട്ട് ട്രിപ്പ് സെറ്റ് ചെയ്ത് പോവുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ രീതി